ആ ചേച്ചി ആ വേറെ ആ വേറെ രണ്ടിടത്ത് പണിയുണ്ടായിരുന്നു അതാണ് ലേറ്റ് ആയത്

ഏതു പൈപ്പിലാണ് വെള്ളം വരാത്തത് അടുക്കളയിലേക്കുള്ളതാണോ അ മെയിനായിട്ട് മെയിനിൽ വെള്ളം വരന്നുണ്ടോ വേറെ എവിടെയെങ്കിലും വെള്ളം വരുന്നുണ്ടോ ആ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ചേച്ചി ഇവിടെ മറ്റേ ചൂട് വെള്ളം ഉണ്ടോ കുറച്ച് ആ കുറച്ച് ആ പൈപ്പിൽ ഒഴിക്കാനാണ് കുറച്ച് ചൂടു വെള്ളം തന്നു കഴിഞ്ഞാൽ ഉപകാരം ആയി അ ഞാൻ അതിൻ്റെ വാൾവ് ഒന്നു നോക്കട്ടെ ഒരു മിനിറ്റ് ഓക്കെ ചേച്ചീ ഇത് ഉള്ളിൽ പൊട്ടി ഇരിക്കണെന്നു തോന്നുന്നു കേട്ടോ അടിയിൽക്കൂടി വരുമ്പോഴ് ആ മിക്കവാറും മാറ്റേണ്ടി വരും കാരണം കുറച്ച് പൊട്ടൽ കൂടുതൽ ഉണ്ട് ആപ്പോൾ നമ്മൾ ജെസ്റ്റ് കട്ട് ചെയ്തു കളഞ്ഞിട്ടിട്ടാലും വീണ്ടും അതു പൊട്ടും പൈപ്പ് പഴയതായത് കാരണം കൊണ്ട് മിക്കവാറും ഇതു മാറ്റേണ്ടിവരും മോട്ടറിൽനിന്ന് വരുന്ന പൈപ്പ് ഏകദേശം തീരുമാനം ആയിട്ടുണ്ട് ഇപ്പോൾ എത്ര കാലാമായി ഇതിട്ടിട്ട് കുറേ ആയിയെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആയിട്ടുണ്ടാവും അ മൂന്നാലു കൊല്ലം ആ ശരിക്കും നമുക്കൊരു പത്ത് പന്ത്രണ്ടു കൊല്ലമൊക്കെ സുഖമായിട്ട് നിൽക്കേണ്ടതാണ് എന്താണെന്നറിയില്ല തേങ്ങ അങ്ങനെ എന്തെങ്കിലും വീണിരുന്നോ ഇതിൻ്റെ മുകളിൽ വണ്ടി പോവുകയോ വല്ലതും അങ്ങനെന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ ഓക്കെ ലോഡ് കയറ്റിയ വണ്ടിയാണോ ആ ഒക്കെ ചിലപ്പോൾ അതു കാരണം കൊണ്ടായിരിക്കും പൊട്ടിയത് അതായത് ഇത് പൈപ്പ് ഏകദേശം ചതഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഇപ്പോഴത് മാറ്റിയാലും ഇപ്പുറത്ത് മാറ്റിയാലും പ്രഷർ കാരണം കൊണ്ട് അപ്പുറത്ത് പൊട്ടും അപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ അതു നമ്മൾ തുറന്ന് വയ്ക്കില്ലല്ലോ ആ അപ്പോൾ ഇപ്പുറത്ത് മാറ്റിയാലും അപ്പുറത്ത് പൊട്ടാൻ ചാൻസുണ്ട് അപ്പോൾ മിക്കാവാറും നമുക്ക് ആ അവിടുന്ന് മോറ്റോറിൽ നിന്നു വരുന്ന മെയിൻ പൈപ്പിൽ നിന്ന് ഒരു മുക്കാൽക്കൊന്നര അതാണ് വേണ്ടത് അതിലേകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ മാറ്റേണ്ടി വരും വേറെവിടെയെങ്കിലും ലീക്കുണ്ടോ ആ ഓക്കെ ഞാൻ നോക്കട്ടെ ഇനി ഇപ്പോൾ അത് ആ പൈപ്പ് മേടിച്ചിട്ട് വരണം പിന്നെ ഞാൻ നിങ്ങൾ മേടിച്ചിട്ട് വരുമോ അതോ ഞാൻ പോയി മേടിച്ചിട്ട് വരണോ എന്താ വേണ്ടത് ഇന്ന് നോക്കട്ടെ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ ഓ ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്തായാലും ആ ഇന്നോ നാളെയോ ആയിട്ട് നമുക്ക് നോക്കാം മറ്റേ ആ വേറെ ബാത്റൂമിൽ ലീക്കൊക്കെ മാറിയോ ആ ഓക്കെ ഓക്കെ ഞാനെന്നാൽ ഒരു മിനിറ്റ് കേട്ടോ അതിൻ്റെ ആ അളവൊന്നെടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം ആ ഞാൻ നോക്കട്ടെ അപ്പോൾ ടാങ്കിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഓക്കെ മോട്ടർ എത്തുവല്ലേ ആ ഇതിപ്പോൾ മാക്സിമം ഒരു രണ്ട് മൂന്ന് മീറ്ററിൽ സാധനം കിട്ടും പിന്നെ രണ്ട് കപ്പ്ളിങ്ങ് മേടിക്കണം ഒരു ബെൻ്റും മേടിക്കണം ആ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് അയിരത്തിനു താഴെ വരികയുള്ളൂ പൈസ ഞാനേയ് പറ്റിയാൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഒരര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിൽ വന്നിട്ട് അതു ശരിയാക്കി തരാം കേട്ടോ